എനിക്ക് തീർച്ചയായിട്ടും ല എനിക്കി ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ആരും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിത്യവും പരിശീ കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പറ്റൂ എന്തെങ്കിലും അച്ചീവ്മെൻറ് ഏ നമ്മൾ ഒന്നും ചെയ്യാതെ എനിക്ക് ആഗ്രഹം ഉണ്ട് എനിക്കങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല നിരന്തരമായിട്ടുള്ള നമ്മുടെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശീ എന്താണ് പറയുക നമ്മുടെ അധ്വാനം അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പറയാം എനിക്ക് രണ്ട് അധികം വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു ചെറിയ വീട് അത് ഞാനൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുന്നുണ്ട് പക്ഷെ ആ വീട് കെട്ടണമെങ്കിൽ ഒരു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എനിക്കൊരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നിത്യവും പിന്നെ നിത്യം എന്നല്ല നമുക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് മിച്ചം വെച്ചാൽ പോലും നമുക്ക് തികയുന്നില്ല ഒരു സാധാരണക്കാരാണ് നമ്മൾ ഏ അപ്പോൾ അതിനു വേണ്ടി അപ്പോഴേക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർ വരുന്നില്ല നമ്മൾ ഒറ്റയ്ക്കാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തി ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി നിത്യവും എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഞാൻ മാറ്റി വയ്ക്കാം എന്ന് വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ ഞാൻ നിരന്തരമായി പരിശീലിച്ചുകൊണ്ടിരിക്കുവാണ് എന്നെങ്കിലും എനിക്ക് ആ ഞാൻ ആഗ്രഹിച്ചത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലക്ഷ്യം ഒരു ബോധം എന്നും ഉണ്ട് മനസ്സിൽ എനിക്ക് എൻ്റെ ആഗ്രഹം ആണ് ഒരു വീട് അത് എങ്ങനെയെങ്കിലും എനിക്ക് നേടിയെടുക്കണം എത്ര കഷ്ടപ്പെട്ടാലും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ പിന്നെ എന്താണ് പറയുക എല്ലാവരും എല്ലാവരേയും ഇതാകണം എന്നില്ല അങ്ങനെ നമ്മൾ ഒരു പിന്നെ സ്ത്രീ ആണ് അതുകൊണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല എന്തുകൊണ്ട് ചെയ്തുകൂടാ നമുക്ക് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാം കഷ്ടപെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തിന്നുന്നതിന് രുചി വേറെയാണ് അതേപോലെ തന്നെ നമ്മുടെ നിരന്തരമായ പരിശീലത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അതിന് അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും വാല്യൂ കൂടുതലായിരിക്കും അപ്പം എൻ്റെ ആഗ്രഹം ഒരു വീട് ഉണ്ടാക്കുക അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ എന്താണ് പറയുക ക്യാഷ് ഒക്കെ ഇങ്ങനെ എടുത്തു കൂട്ടി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ നല്ല ജോലി എന്നും ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ആണ് നമ്മുടെ വീട് നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തില് മുന്നോട്ട് എന്തെങ്കിലും ഇതാക്കാൻ പറ്റുള്ളൂ ഒരു ലക്ഷ്യം ഇല്ലാത്ത ആൾ വെറും വിരസതമായിരിക്കും അവരുടെ ജീവിതം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ വേണം അല്ലെങ്കിൽ ഒരു അച്ചീവ് വേണം അല്ലെങ്കിൽ ഒരു എയിം വേണം എനിക്കവിടെ എത്തിച്ചേരണം അങ്ങനെ ഒരു ലക്ഷ്യ ബോധത്തോടെ വേണം ഏതൊരു മനുഷ്യനും ജീവിക്കാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നതും അങ്ങനെ ആണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ എനിക്ക് പാസ് ആവണം അത്രയും മാർക്ക് അത്രയും പെർസൻ്റെജ് കിട്ടണം എന്ന് ആഗ്രഹിക്കണം അല്ലാതെ ജസ്റ്റ് പാസ് അത്രയ് അത് ഒരു കാര്യമല്ല എന്ത് കാര്യത്തിനും നമ്മൾ എക്സ്ട്രീം ആഗ്രഹിച്ചാലാണ് നമുക്ക് കുറച്ചെങ്കിലും കിട്ടുക